എനിക്കൊരു ഫുൾ മന്തി ഇതൊക്കെ വേണം പക്ഷെ നമുക്ക് ഈ വേറെ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്ന് അറിയണമായിരുന്നു കാരണം അത്യാവശ്യമായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് എന്റെ അടുത്ത് ക്യാഷ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വേറെ വല്ല ഓപ്ഷനുണ്ടെങ്കില് നമുക്ക് വേറെ വല്ല ഓപ്ഷനും ആയിരുന്നെങ്കില് ഓക്കേ ആയിരുന്നു ഇത് ഇപ്പം ക്യാഷ് ഓൺ ഡെലിവറി ആയത് കൊണ്ടാണ് പറ്റാത്തത് വേറെ രീതിയില് പണം നൽകാൻ പറ്റുമോ എനിക്ക് എന്തായാലും അർജൻറ്റായിട്ട് ഫുഡ് വേണമായിരുന്നു അതുകൊണ്ടാണ് അപ്പം എനിക്ക് ഇവിടുന്നാകുമ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് ഇവിടെ ഇത്രേം ദൂരേന്ന് ഇവിടെ ഈ ഒരു നല്ല റെസ്റ്റോറൻറ്റ് മാത്രോള്ളു അപ്പം അതുകൊണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി അല്ലാത്തൊര് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കില് നമുക്കൊരു ഫുഡ് ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് എനിക്ക് അത്യാവശ്യായിട്ട് ഫുഡ് വേണം അപ്പം പിന്നെ വേറെ വാല്ലൊരു ഓപ്ഷനുണ്ടോ പണം നൽകാൻന്നായിരുന്നു എനിക്ക് ഫുഡ് വേണം എന്നത് കൊണ്ടായിരുന്നു